എനിക്കിഷ്ടപ്പെട്ട കലാകാരൻ എന്നത് വിൻസെൻറ്റ് വാക്കോണാണ് ലോകം അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു കലാകാരനാണ് വിൻസെൻറ്റ് തന്റെ കലയുടെ യിലൂടെ മനുഷ്യനെ അങ് തധികം കലയെ സ്നേഹിപ്പിച്ച ഒരാളാണ് പുളി വിൻസെൻറ്റ് എന്നു പറയുന്നൊരു ഡച്ച് പോസ്റ്റ് ഇമ്പസ്റ്റൻറ്റ് പെയിൻ്ററായിരുന്നു പുള്ളിയുടെ ജനനം മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു പുള്ളി ഭയങ്കര മെൻറ്റലി സ്റ്റെ ഇൻസ്റ്റേബിളായിരുന്നു കൊയറ്റായിരുന്നു സീരിയസ്സായിരുന്നു പക്ഷെ എല്ലാത്തിലുപരി കലയിൽ ഫോക്കസ് ചെയ്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്റെ ജീവിതത്തെ കല കളിയിലൂടെയാണ് കാണിക്കുന്നത് തന്നെ ഓരൊ അയാളുടെ വരകളിലും ഓരോ അർത്ഥങ്ങളാണ് മറ്റുള്ളവരെ വരക്കാൻ കൂടി പ്രേരിപ്പിക്കുന്ന ഒരാളാണ് വിൻസെൻറ്റ് വാൻ ഗോക്ക് എന്നു പറയുന്നത് അതിലുപരി പുള്ളിയുടെ മരണശേഷമാണ് പുള്ളിയുടെ പല ചിത്രങ്ങളും ലോകമെമ്പാടും ഫേമസ്സായതു തന്നെ പുള്ളി പോലും അറിയാതെ പുള്ളി വരച്ച പുള്ളിയുടെ ചിത്രങ്ങളാണ് ഇന്നു ലോകമെമ്പാടും കാണുന്നത് പുള്ളി പോലും ഓർത്തിട്ടുണ്ടാകുമോ ഒരു കാലത്ത് ഇങ്ങനെ താൻ വരച്ച ചിത്രങ്ങൾ എല്ലാം ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും കാണുമെന്ന് ഒരിക്കലുമുണ്ടായിരിക്കില്ല പക്ഷെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം കാണുമ്പോൾത്തന്നെ ഏറ്റവും വലിയ ഒന്നാണ് പുള്ളിയുടെ പടങ്ങൾ പുള്ളിയുടെ പടങ്ങൾ ലോകമെമ്പാടും അറിയപ്പെടുന്നു ഓരോ മനുഷ്യരും അതിനെ സ്നേഹിക്കുകയും അതിന്റെ അർത്ഥങ്ങൾ തേടി പോകുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അയാളെ പോലെയുള്ള പ്രശസ്ത പടംവരക്കാരെ നാം ഓർക്കേണ്ടതല്ലെ ഓരോരുത്തരും അതിൻറ്റേതായ രീതിയിൽ പടം വരയ്ക്കുമ്പോൾ പുള്ളി തന്റെ കഴിവുകൾ കാണിക്കുകയായിരുന്നു പുള്ളി എന്നു പറയുന്നത് പുള്ളി അ പുള്ളി ഓരോ ഇൻഫ്ലൂവർസറായിരുന്നു മറ്റുള്ള വരക്കാർക്കൊരിൻഫ്ലൂസറാണ് പുള്ളി അങ്ങനെ തന്നെ മറ്റുള്ളവരെ തന്റെ വരയെ സ്നേഹിക്കാനും വരയെ എന്തെന്നു പഠിപ്പിച്ചൊരു വ്യക്തിയാണ് പുള്ളി അതുകൊണ്ടു തന്നെ എനിക്ക് പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളീയുടെ ഓരോ ചിത്രങ്ങളും കാണുമ്പോൾ മനസ്സിനൊരാശ്വാസമാണ് നാം പോലും അറിയാതെ മനസ്സിൽ നിന്ന് എവിടെയോ ഒരു പുഞ്ചിരി ഉണരുന്നതാണ് അതൊക്കെ വിൻസെൻറ്റിന്റെ ഓരോ കലകളാണ്